ആ നമ്മൾ കുഞ്ഞു മൃഗങ്ങളെ നമ്മൾ പരിപാലിക്കുന്നത് നല്ല സ്നേഹത്തോടും കരുതലോടും കൂടിയായിരിക്കണം കാരണം ഇപ്പം തള്ളപ്പൂച്ച ഇപ്പോഴത്തെ തള്ളപ്പൂച്ച പ്രസവിച്ചു അതിൻ്റെ കുഞ്ഞ് കണ്ണു തുറക്കണമെങ്കിൽ അതൊരു പത്തു മുപ്പത് ദിവസം എടുക്കും തള്ളപ്പൂച്ച തന്നെ പരിപാലിക്കുന്നതു പോലെ നമ്മളതിനെ പരിപാലിക്കണം കണ്ണു തുറന്ന് ഇപ്പോൾ വലുതാകുമ്പോഴത്തേക്കും അതിന് തള്ളപ്പൂച്ച അതിൻ്റെ പാലു കുടി നിർത്തും പിന്നതു സ്വന്തമായിട്ട് അത് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങണം അപ്പോഴത്തേക്കു നമ്മൾ അതിനെ നമ്മൾ ചെറിയ നിപ്പിൾ കുപ്പിയിലൊക്കെ പാലു കൊടുത്ത് അങ്ങനെ പരിപാലിച്ച് അതിന് ഒരു ചോറ് കൊടുത്ത് അങ്ങനെ പരിപാലിച്ചാണ് നമ്മൾ സ്നേഹത്തോടെയും കരുതലോടെയും കൊണ്ടു വരുന്നത് അതിൻ്റെ തള്ളപ്പൂച്ച എങ്ങനെ പരിപാലിക്കുന്നോ അതുപോലെയാണ് നമ്മൾ അതിനെ നോക്കുന്നതും നോക്കി വളർത്തുന്നതും ഒക്കെ ഇപ്പോൾ ഒരു പട്ടിയുടെ ഉദാ പട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ പട്ടി പ്രസവിച്ച ഉടനെ തന്നെ അതിനെ നക്കി തുടച്ച് എല്ലാം വൃത്തിയാക്കി എടുക്കും അതുപോലെ തന്നെ നമ്മളും അതിനനു നല്ല തുണി ഒക്കെ ഇട്ടുകൊടുത്ത് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അതു നമ്മൾ തുണിയൊക്കെ ഇട്ടുകൊടുത്ത് അത്തിൽ കിടത്തി തണുപ്പടിക്കാണ്ട് കുറച്ചു ദിവസം നമ്മൾ പുര്ക്കാ വീട്ടിൻ്റെ അകത്ത് കൊണ്ടെ വെച്ച് അങ്ങനെ കുറെ ഒക്കെ ചെയ്തു നോക്കി അതിനെ നല്ല വൃത്തിയാക്കി എ എന്നും കുളിപ്പിച്ച് എന്നും കുളിപ്പിച്ച് നല്ല നല്ല തുണിയൊക്കെ ഇട്ടുകൊടുത്ത് ഒരു പെട്ടിക്കകത്താക്കോ അങ്ങനെയൊന്ന് ചെയ്യുകയാണ് നല്ല നല്ല പോലെ അതു നമ്മൾ സംരക്ഷിക്കുന്നത് അതിനു പ്രത്യുല്പാദനം പ്രോവൈ ചെയ്യുക ഓരോരു ആറു മാസത്തിനുള്ളിൽ പൂച്ചയൊക്കെ പ്രസവിക്കും പട്ടിക്കൊക്കെ പട്ടി പശു ഒക്കെ നമ്മൾ പശുവിനൊക്കെ ഇൻജക്ഷൻ ചെയ്തു അങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് പട്ടിയൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്യിച്ച് അങ്ങനെ ഉത്പാദിപ്പിക്കും പിന്നെ നമ്മൾ സ്നേഹത്തോടും കരുതലോടും കൂടി നമ്മൾ ഏതു മൃഗത്തിനെ വളർത്തിയാലും അതിനെ നോക്കി പരിപാലിക്കുന്ന പോലിരിക്കും അപ്പോൾ അതു നമുക്കും അതുപോലെ തന്നെ നമുക്കൊരു സ്നേഹത്തോടെയും എല്ലാം ചെയ്ത് കൊടുത്ത് പൂച്ചക്കൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന പോലെ ഇരിക്കും നമ്മൾ നല്ല തുണിയൊക്കെ ഇട്ടുകൊടുത്ത് എന്നും കുളിപ്പിച്ച് വ്യത്തിയായിട്ട് സൂക്ഷിക്കുന്നു അപ്പം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും നമ്മളതുപോലെ തന്നെ നോക്കി പരിപാലിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്